കായിക വിനോദങ്ങൾ പിരിമുറുക്കങ്ങൾ മാറ്റാനും ആസ്വദിക്കാനുമുള്ള ഒരു വഴിയായി എങ്ങനെ മാറുന്നു കായികവിനോദങ്ങൾ അതായത് അഡ്വെഞ്ചറസ് ഗെയിംസ് അഡ്വെഞ്ചറസ് ഗെയിംസ് ഇപ്പോൾ നമുക്ക് കുറെ നമുക്ക് ഇപ്പോൾ അഡ്വെഞ്ചറസ് പാർക്സികിലോ അല്ലെൽ അമ്യൂസ്മെൻറ്റ് പാർക്സിലോക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ പാര ഗ്ലൈഡിങ് പാര സെയ്ലിംഗ് ബഞ്ചി ജമ്പിങ് കയാക്കിങ് കനോയിങ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പല അഡ്വെഞ്ചറസ് സ്പോർട്സ് ചെയ്യാനായി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കുറെ സ്പോർട്സ് പാർക്സിപ്പോൾ ഓപ്പണാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ്സ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു സഡൻ അഡ്രിനൽ അഡ്രിനാലിൻ റഷ് വന്നിട്ട് കുറച്ച് നമ്മളുടെ ഉള്ളില് ഒരു ഇക്സൈറ്റ്മൻറ്റ് ക്രിയേട്ട് ചെയ്യാനായിട്ട് വളരെ ഹെല്പ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഗെയിംസാണ് ഇതൊക്കെ ആ അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇക്സൈറ്റ്മൻറ്റും സംഭവങ്ങളൊക്കെ വരും നമ്മൾ അപ്പോൾ കുറച്ച് സ്ട്രെസ് ഫ്രീ ആകും ഹാപ്പിയാവും അപ്പോൾ ഈ കായികവിനോദങ്ങള് അതായത് ഈ അഡ്വെഞ്ചറസ് സ്പോർട്സൊക്കെ എന്താ പറയുക മനുഷ്യരെ ഒന്ന് ഫ്രീ ആക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ടെൻഷൻസ് ഫ്രീ ആക്കാനായിട്ട് ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും